നമസ്കാരം ഞാനിപ്പോഴൊരു സ്കോളർഷിപ്പ് അപേക്ഷയ്ക്കായിട്ടുള്ള കാര്യത്തിന് വേണ്ടി അറിയാനാണ് നിങ്ങളെ ഇപ്പോള് ബന്ധപ്പെട്ടത് എനിക്കൊരു സ്കോളർഷിപ്പ് അപേക്ഷയ്ക്കായിട്ട് അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോള് സ്ഥലത്തില്ല ഞാനൊരു അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ പോയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇന്നെനിക്ക് അതിന് കഴിയില്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ടുതന്നെ എൻ്റെ ഈ ഫിസിക്കൽ രേഖകള് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോള് എൻ്റെ ഈ ദുരവസ്ഥ മനസ്സിലാക്കുകയും സമയപരിധി പാലിക്കുന്നതിനായി ഡിജിലോക്കറിൽ നിന്ന് ആ അക്കാദമിക് സർട്ടിഫിക്കറ്റുകള് വീണ്ടെടുക്കാൻ വേണ്ടി എന്നെ സഹായിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ